ഹലോ ഇതാരായിരുന്നു ആ എവിടെ എവിടെയാണ് ഞങ്ങൾ കോഴിക്കോടാണ് ആ ഉണ്ടാവും ആ ഉണ്ടാവും ഉണ്ടാവും

ആയിക്കോട്ടെ ഇവിടെ മൂന്ന് ദിവസത്തേക്ക് മുപ്പതിനായിരം രൂപയാണ് പിന്നെ ചാർജ്ജ് വരുന്നത്

ആ വണ്ടി ഞങ്ങൾ ചെയ്യും ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അറിയിച്ചാൽ മതി വയനാട്ടിൽ നമ്മൾ പിന്നെ എന്താ തിരുനെല്ലി ടെമ്പിളുണ്ട് പിന്നെ ഇത് പൂക്കോട് അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ആ ഡ്രൈവറെ ഞങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തു തരാം

ശരി ഓക്കെ